ഹലോ ഞാൻ അൽഫിയായിരുന്നു ഞാൻ വിളിച്ചത് എനിക്ക് കുറച്ച് ഡൗട്ട് ക്ലിയർ ചെയ്യാൻ വിളിച്ചതാണ് ഇന്ന് പഠിപ്പിച്ച ആ ഹാരപ്പൻ സിവിലൈസേഷൻ മെസൊപ്പൊട്ടാമിയം സിവിലൈസേഷൻ പിന്നെ ചരിത്രം ചരിത്രത്തിലെ മധ്യ കാലഘട്ടവില്ലെ അതെനിക്ക് മനസ്സിലായില്ല ഒന്നും കൂടൊന്ന് പറഞ്ഞു തരാമോ ആ

ആ ആണ് ആ പറഞ്ഞായിരുന്നു മിസ്സ്

അതൊക്കെ കഴിഞ്ഞിട്ട് നിൽക്കുവോ അതൊക്കെ ഇത്തിരി ഓടി ചെന്നാൽ കാണാൻ പറ്റുമോന്നാ

ഓക്കെ ഓക്കെ

ഓ ആ

പിന്നെ ഈ ചരിത്രം

ആ ചരിത്രത്തിലെ മധ്യ കാലഘട്ടം ഓക്കെ ഓക്കെ അങ്ങനെ രണ്ട്

ആ ഇപ്പം കി

ഓക്കെ ഓക്കെ

ഓക്കെ ഓക്കെ മിസ്സെ ഇല്ല മിസ്സെ താങ്ക് യൂ മിസ്സെ അപ്പം മിസ്സെ ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ ഈ ചരിത്രത്തിലെ മധ്യ കാലഘട്ടം ഏറ്റോം ഇമ്പോട്ടൻറ്റാണോ ആ ആ ഓക്കെ മിസ്സെ

ഓക്കെ മിസ്സെ ഓക്കെ മിസ്സെ ഓക്കെ മി ഇല്ല മിസ്സെ താങ്ക് യൂ മിസ്സെ

ഇനി ഇല്ല മിസ്സെ ഇനി ഉണ്ടെങ്കിൽ ഇനി ഇടാ ഇത്ര ഒൾ ഇന്നലെ ഇത്ര ഇന്നല്ലെ പഠിപ്പിച്ചൊള്ളു അപ്പം ഇത് കുഴപ്പമില്ല ഇപ്പം ഡൗട്ടെല്ലാം ക്ലിയറായി ഓക്കെ താങ്ക് യൂ മിസ്സ്